മോസ്റ്റലി ഞാൻ പ്രിഫെർ ചെയ്യുന്നത് ഒരു ബൈസിക്കിൾ ബൈസിക്കിൾസ് തന്നെയായിരിക്കും അതു ഞാൻ നല്ല രീതിയിൽ സർവ്വീസ് ചെയ്യാറുണ്ട് വീക്കിലി വൺ ടൈം ശരി ഞാൻ അത് ക്ലീൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓയിൽ ഇട്ടു കൊടുക്കാറുണ്ട് സർവ്വീസ് ചെയ്യാറുണ്ട് പിന്നെ അവരുടെ ഒരു ടൈം ലിമിറ്റ് ആവുന്ന സമയം ഞാൻ വണ്ടി സർവീസിനു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പിന്നെ ദൂര യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മോസ്റ്റലി ഞാൻ പ്രിഫെർ ചെയ്യുന്നത് ഈ ടൂ വീലേഴ്സ് തന്നെയായിരിക്കും നമ്മുക്ക് ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ളൊരു വേയാണ് തോന്നുണു കാരണം ഞാൻ ആദ്യം ഓട്ടി പഠിച്ചത് എൻ്റെ വണ്ടിയിലായതുകൊണ്ട് തന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടമാണ് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കൂടുതൽ താൽപര്യപ്പെടുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ റോഡിൽ സേഫ്റ്റി അനുസരിച്ചിട്ട് ആണെങ്കിൽ എല്ലാ ജാഗ്രതയും നോക്കിയിട്ടു ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി ഓടിച്ചു പോവാറുള്ളത് നമുക്ക് അത് നമ്മുടെ ടൂ വീലേഴ്സ് ആവുമ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വെയിൽ കൊള്ളാം കാറ്റ് മഴ എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ചുറ്റുപാടുള്ള കാഴ്ചകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാൻ സാധിക്കും അതുകൊണ്ടു ഞാൻ മോസ്റ്റിലി പ്രിഫെർ ചെയ്യുന്ന ഒന്നെന്നു പറയുന്നത് ഈ ബൈസിക്കിൾസ് തന്നെയാണ്